ഞാനിപ്പോൾ പഠിക്കുന്നത് ബീ എസ് സി കെമിസ്ട്രി സെക്കൻ്റ് ഇയറാണ് കെമിസ്ട്രി എന്നു പറയുന്ന സബ്ജക്റ്റ് വളരെയേറെ ഒരു വ്യത്യസ്തമായ സബ്ജക്റ്റാണ് എനിക്കു പറയുകയാണെങ്കിൽ എല്ലാവർക്കും അത് പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം എന്നു വെച്ചാൽ ഈ മറ്റേ മാക്സിനോ അതോ മറ്റ് സബ്ജെക്റ്റിനുള്ളതു പോലെ കെമിസ്ട്രിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ ഓഡർ ഒന്നുമില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളാണ് ഇപ്പോൾ എല്ലാ സംഭവങ്ങൾക്കും ആ നിയമം പാലിക്കുമെങ്കിലും ചിലതിന് പാലിക്കാത്ത നിയമങ്ങളും ഉണ്ടാകാറുണ്ട് പിന്നെ കെമിസ്ട്രിയിലൊരു പ്രധാന ക ഭാഗമാണ് കെമിസ്ട്രി ലാബ് കെമിസ്ട്രി ലാബിലും വളരെയേറെ രസകരമായ കുറേ എക്സ്പിരിമെൻസ്സും വളരെയേറെ രസമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ കെമിസ്ട്രീ എന്നുള്ളൊരു മേഘല വളരെയേറെ ഒരു നമുക്ക് വളരെ വേണ്ടൊരു ഇമ്പോട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖല തന്നെയാണ് പക്ഷേ കുറേ മരുന്നുകളുണ്ടാക്കാനും കോസ്മെറ്റിക്കിൻ്റസ്ട്രിയിലും പിന്നെ പെട്രോളിയം ഇൻൻ്റസ്ട്രീ അങ്ങനെ നമുക്ക് ഡെയ്ലി ലൈഫിൽ വേണ്ടത് നമ്മൾ സ്ഥിര ജീവിതത്തിൽ വേണ്ട കുറേ സംഭവങ്ങൾ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ കെമിസ്ട്രി എടുത്തത് പിന്നെ എനിക്ക് കെമിസ്ട്രിയിൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട് പിന്നെ കെമിസ്ട്രി എനിക്ക് അത്യാവശ്യം നന്നായി മനസിലാകുന്നുമുണ്ട് പിന്നെ കെമിസ്ട്രി എന്ന സബ്ജക്ട് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് നമുക്ക് കുറച്ചു പുറത്തു നിന്നു നോക്കുമ്പോൾ ഇത് എളുപ്പ മാണെന്നു തോന്നും പക്ഷെ അങ്ങനെയല്ല നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മനസ്സിലാക്കാനും കുറച്ചു സമയമെടുക്കും മാത്സ് പോലെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് മാക്സ്സും എളുപ്പമാണ് എന്നല്ല ഞാൻ പറയുന്നത് മാക്സിന് ഉള്ളതു പോലെ ഒരു സെയിം റൂൾ എല്ലാറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ചില എലമെൻസിൽ ചില ഘടകങ്ങൾക്ക് മൂലകങ്ങൾക്ക് വ്യത്യസ്തമായ നിയമങ്ങളും ചിലതിന് വേറെ നിയമങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ കെമിസ്ട്രി പഠിക്കാൻ കുറച്ചു സമയമെടുക്കും കാരണം അതിന്റെ ബേയ്സ്സ് പഠിച്ചാലാണ് നമുക്ക് കെമിസ്ട്രിയിലെ ബാക്കിയെല്ലാം പഠിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ നമ്മളാദ്യം അതിന്റെ അടിത്തറ പഠിക്കണം അടി പഠിച്ചാലാണ് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളു പിന്നെ കെമിസ്ട്രി എന്നുള്ളൊരു വാക്ക് രസ രസതന്ത്രമെന്നൊരു സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ രസമാണ് നമുക്ക് ലാബുകളിലൊക്കെയുള്ള എക്സ്പ്പിരിമെൻസ്സൊക്കെ വളരെയേറെ രസമുള്ളൊരു കൗതുകം നിറഞ്ഞ കുറേ എക്സ്പിരിമെൻസ്സാണ് അതു കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാദ്ധ്യതയുണ്ട് പിന്നെ എനിക്കു അതെ ലാബ്ബ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടാ ക്ലാസ്സിലിരിക്കണേക്കാൾ കൂടുതൽ നമ്മൾ പ്രാക്റ്റിക്കൽ ആയി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് രസം പ്രാക്റ്റിക്കൽ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാം പിന്നെ ഓർഗാനിക്ക് കെമിസ്ട്രി എന്നൊരു ഭാഗം എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് ഓർഗാനിക് കെമിസ്ട്രി എന്നത് കെമിസ്ട്രിയിലെ ഒരിമ്പോർട്ടൻട് ഭാഗമാണ് അതു തന്നെ കുറേ വ്യത്യസ്തമായ കുറേ വ്യത്യസ്തമായ ഭാഗങ്ങളുണ്ട് ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് അത് പഠിക്കാനും എളുപ്പമാണ്